ശരിയാണ് എന്നേ ഏറെ ചിന്തിപ്പിച്ച ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം കിട്ടണത് മീന്സ് ആട് ജീവിതം തന്നെയാണ് കൂടുതലായിട്ടെന്നെ ചിന്തിപ്പിച്ചത് കാരണം ഞമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് ഇങ്ങനൊരു മീന്സ് സ്ഥലത്തു നിന്നും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യങ്ങൾ ഒന്നും ഇതുവരെ ഞമ്മളുടെ എന്റെ ലൈഫിലൊന്നും വന്നിട്ടില്ല ആരുടെയും ലൈഫിൽ വന്നിട്ടുണ്ടാകില്ല നജീബിന്റെ അവസ്ഥകൾ ഒക്കെ ആടുജീവിതത്തില് കറക്റ്റ് ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നേ കൂടുതൽ ചിന്തിപ്പിച്ചൊരു കഥയും കൂടിയാണ് ആടുജീവിതം എന്നു പറഞ്ഞിട്ടുള്ള ആ ഒരു പുസ്തകം പിന്നെ ആശയങ്ങള് ഒക്കെ എന്തൊക്കെയെന്നു പറഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ എന്താ എന്തിയോ എത്രയോ പുണ്യം ചെയ്തിട്ടുണ്ടെന്നു തന്നെ പറയാം അതുപോലെതന്നെ ഞാനൊരു വായനാ ക്ലബ്ബിൽ ചേർന്നിട്ടുണ്ടായിരുന്നു എന്താ ചെറുപ്പത്തിലായിരുന്നു കുറച്ചൊക്കെ ഒരു എട്ട് ഒന്പത് പത്ത് പതിനൊന്ന് ആ ഒരു ഏജുള്ള ആ ഒരു ടൈമിൽ ഇവിടെ താഴെത്തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തു തന്നെ ഒരു ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ പോയി ചേര്ന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പുസ്തകങ്ങള് വായിച്ചിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഇത് ആടുജീവിതത്തിന്റെ കാര്യങ്ങൾ പറയുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മീന്സ് എന്താ ആ ഒരു പുസ്തകം വായിച്ചാൽ തന്നെ അറിയാം ഓരോ ഓരോരുത്തരെ കുറിച്ച് മീൻസ് അതിലുള്ള ഹക്കീമിന്റെയും അതുപോലെ നജീബിന്റെയും അവസ്ഥകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ എന്താ ആ ഒരു മരുഭൂമിയിൽ കിടന്ന് അവർ കഷ്ടപ്പെടുന്ന ഓരോരോ കാര്യങ്ങളും ഒക്കെ നമ്മളെ ഏറെ നമ്മളുടെ നല്ലവണ്ണം ചിന്തിപ്പിക്കും ഞമ്മടെ ഓരോ അവസ്ഥകളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കും അപ്പോൾ അതൊക്കെയാണ് ഓരോ ക കഥയിൽ ഓരോ ഓരോ കഥകള്ക്കും ഓരോരോ ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്